ഞാൻ എൻ്റെ വീട്ടിലേക്കൊരു ഫർണീച്ചർ മേടിച്ചതിനെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിലേക്കൊരു ഫർണീച്ചർ ഇങ്ങനെ ഷോപ്പിലൊക്കെ കാണാറുണ്ട് എങ്കിലും ആ ഷോപ്പിൽ കണ്ടിട്ടൊക്കെ ഒരു സോഫ സെറ്റാണ് ഞാൻ മേടിച്ചത് സോഫ സെറ്റും ഒരു ഡൈനിങ്ങ് ടേബിളും ആണ് മേടിച്ചത് അത് രണ്ടും പിന്നെ ഫോണിലൂടെയൊക്കെ കണ്ടിട്ടൊക്കെ അങ്ങനെ ഇഷ്ടപ്പെട്ടു പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ അവിടെ ഒരു ഫർണിച്ചർ കട ഇണ്ടേനു അവിടെ ഫർണീച്ചർ കടയിലൊക്കെ കണ്ടിട്ട് നല്ല പ്രോഡക്റ്റാണെന്ന് തോന്നി നല്ല നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട് എന്ന് തോന്നിയിട്ട് ഞാനും ഹസ്ബൻറ്റും കൂടി പോയിട്ട് ഷോപ്പിൽ പോയിട്ട് നോക്കീ നോക്കിയപ്പം നല്ല സാ നല്ല സാധനവും നല്ല പ്രൊഡക്റ്റൊക്കെ തന്നെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു സോഫയും സോഫയും പിന്നെ ഡൈനിങ്ങ് ടേബിളും മേടിച്ചു അങ്ങനെ ഞങ്ങൾ മേടിച്ച് വീട്ടിൽ വന്ന് വീട്ടിൽ വന്നത് ഫിറ്റ് ചെയ്ത് നോക്കിയപ്പം തന്നെ ഒരു ചില്ലിൻ്റെ ഗ്ലാസ്സായിരുന്നു അതിനുണ്ടായിരുന്നത് പിന്നെ അന്നത്തെ ദിവസം എല്ലാവരും ഫുഡ് കഴിച്ചു ആ ഡൈനിങ്ങ് ടേബിളിൽ ഇരുന്നിട്ടാണ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചത് പിന്നെ ഒരാഴ്ച്ച കഴിഞ്ഞപ്പോൾ ആ ചില്ലിനൊരു വിള്ളൽ വന്നു അത് ഞങ്ങളങ്ങനെ ഞങ്ങൾ കയ്യും കൊണ്ട് തട്ടിയതും അങ്ങനെ ഒന്നും അല്ലായിരുന്നു അങ്ങനെ ആ പിന്നെ ടേബിളിനൊരു വിള്ളലൊക്കെ വന്നു അത് പിന്നെ അടിയിലേക്ക് നോക്കിയപ്പോൾ ഫുള്ള് പിന്നെ നല്ലയില്ലാത്ത മരകണ്ടങ്ങളൊക്കെ ആയിരുന്നു